ബിസിനസ് പരമായി അധികമായും വളർത്തുന്നത് ഇറച്ചി കോഴികൾ ആണെങ്കിലും മറ്റു നാടൻ കോഴികൾ താറാവുകൾ അങ്ങനെ പല തരം വീട്ടിലും കൃഷി സ്ഥലങ്ങളിലും ആയിട്ട് ഒണ്ട് പക്ഷേ ഒരുപാട് വളർത്തുന്നത് ഇറച്ചിക്കോഴി കാരണം ഇറച്ചി കോഴികൾക്കാണ് ഒരുപാട് ഡിമാൻഡ് ഉള്ളത് താറാവ് ഇറച്ചിയും മറ്റു നാടൻ കോഴി ഇറച്ചികൾക്കെല്ലാം വില കൂടുതലാണ് ഇറച്ചിക്കോഴികൾ വിലക്കുറവിൽ ലഭിക്കും പിന്നെ അതിനാണ് ഒരുപാട് ആവശ്യക്കാർ ഉള്ളത് അതുകൊണ്ട് ഏറ്റവും കൂടുതൽ വളർത്തുന്നത് ഇറച്ചി കോഴികൾ തന്നെയാണ് ബിസിനസ്സ് കൈകാര്യം ചെയ്യുന്നത് അത്ര എളുപ്പമല്ലെങ്കിലും ഒരുപാട് പേരുടെ സഹായത്തോടു കൂടി വളരെ സുഖകരമായി ബിസിനസ്സ് മുന്നോട്ടുകൊണ്ടുപോകാൻ സഹായിക്കുന്നു കോഴി വളർത്തലും കോഴിയുടെ കാര്യങ്ങൾ നോക്കലും അവ അവയെ നേരെ പരിപാലിക്കലും മുതൽ ഓർഡർ കടകളിൽ പോയി ആവശ്യക്കാരുടെ അടുത്ത് പോയി ഓർഡറുകൾ എടുക്കുന്നതും അവ വിതരണം ചെയ്യുന്നതും എല്ലാം വളരെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് എന്നിരുന്നാലും ഒരുപാട് പേരുടെ സഹായത്തോടുകൂടി ഒരുപാട് ജോലിക്കാരുടെ അധ്വാനം മൂലം കോഴി വളർത്തൽ നല്ല സുഖമമായിട്ട് പോകുന്നുണ്ട്